ആഹ് ഞാൻ ഡ്രോയിംഗ് ക്ലാസ്സിനു പോയിരുന്നു പോവുമ്പോൾ എല്ലാവരും കരുതുന്ന പോലെ ഞാനും വിചാരിച്ചു കണ്ടു പഠിച്ചു കഴിഞ്ഞാൽ നല്ല രസമാണ് എഴുതാനൊക്കെ നല്ല സുഖമാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനൊക്കെ എഴുതുമ്പം വരയ്ക്കുമ്പോഴും ഒന്നും ശരിക്കു വരാറില്ല പിന്നെ വരയ്ക്കുമ്പോൾ ഒക്കെ കുളം ആവാറൊക്കെ ആണ് പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നതുപോലെ വൃത്തിയ്ക്ക് അങ്ങനെ വരഞ്ഞു വരികയൊന്നുമില്ല കുറച്ചൊക്കെ കഷ്ടപ്പാടാണ് പിന്നെ എങ്ങനെന്നു വച്ചാൽ വരച്ചു നല്ല കൃത്യം പഠിച്ചു കഴിഞ്ഞാൽ നല്ല രസമാണ് പഠിക്കുന്ന വരെയുള്ളൊരു ബുദ്ധിമുട്ടെന്നു വച്ചാൽ ഇപ്പം ഒരു പൂച്ചേനെ വരയ്ക്കാൻ പോയാൽ നമ്മൾ ഈ മരത്തിലൊക്കെ വവ്വാൽ തൂങ്ങിക്കിടക്കുന്ന പോലെയൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ആ വൃത്തിയ്ക്ക് വരയ്ക്കാനൊന്നും നമ്മളെക്കൊണ്ട് കഴിയാൻ സാധ്യതയില്ല അപ്പം പരമാവധി നല്ല വൃത്തിയ്ക്ക് വരയ്ക്കാൻ നോക്കാം പിന്നേ അങ്ങനെ പഠിക്കാം അതും രസമാണ് അതൊക്കെ രസമായിരുന്നു ഭയങ്കര രസമാണ് പക്ഷേ ശരിക്ക് പഠിക്കണം പഠിക്കുന്നവർക്കു അത് രസമാണ് അല്ലാത്തവരു ഫസ്റ്റ് തൊട്ട് പഠിക്കുന്നവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെയെന്താ പറയുക വരച്ചു പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതും വെച്ച് ഉപയോഗമുണ്ട് നമുക്ക് വരച്ച് ഫോട്ടോസൊക്കെ വിറ്റ് പൈസ ഉണ്ടാക്കാം പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനൊക്കെ ഫോട്ടോയൊക്കെ വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പൈസ എന്തായാലും നല്ല കാര്യമാണ്